ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മളുടെ കേരളത്തിൽ മറ്റൊരു ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് മലപ്പുറം ജില്ല ആളുകൾക്ക് സന്തോഷത്തോടെയും സമാവിഷ്ട സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയുന്ന നല്ലൊരു അന്തരീക്ഷമാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഉള്ളത് ഇപ്പോൾ മഴ കാലത്താണെന്നുണ്ടെങ്കിലും ചൂട് കലത്താണെന്നുണ്ടെങ്കിലും കൂടുതൽ പച്ചപ്പും കാര്യമൊക്കെ ഉണ്ടായതു കൊണ്ട് ചൂട് ഇപ്പം മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ഇപ്പോൾ പാലക്കാട് ജില്ലയിനെ ഒക്കെ അപേക്ഷിച്ചിട്ട് ചൂടു കുറവുള്ളൊരു പ്രദേശമാണ് നമ്മളുടെ മലപ്പുറം ജില്ല അപ്പോൾ മഴ കാലത്താണെന്നുണ്ടെങ്കിൽ ഈ പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് പ്രളയ സമയതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നെങ്കിൽപ്പോലും എല്ലാവരും പരസ്പര സാഹകരണതോടെ ജീവിക്കുന്ന നാടായതു കൊണ്ട് തന്നെ ആർക്കും ബുദ്ധിമുട്ടിലാത്ത രീതിയിൽ കാര്യങ്ങൾ നടത്താനും ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റി പാർപ്പിക്കാനും ഈ മലപ്പുറം ജില്ലയിലെ ആളുകളുടെ സഹകരണം കൊണ്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ നിലവിലുള്ള അന്തരീക്ഷം ചൂടു കാലത്തു തന്നെ മറ്റു ജില്ലയെ അപേക്ഷിച്ച് ചൂടു കുറവായതിനാൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഈ മലപ്പുറം ജില്ലയിലുണ്ടായിട്ടില്ല പിന്നെ ചില ഭാഗങ്ങൾ താഴ്ന്നു നിൽക്കുന്ന സമയത്തും നല്ല മഴക്കാലം വരുന്ന സമയത്ത് ചില പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ പോകാറുണ്ട് എന്നതിലുപരി ഒരു തൊണ്ണൂറ്റീ തൊണ്ണൂർ ശതമാനം ആളുകളും വളരെ നല്ല രീതിയിൽത്തന്നെ ജീവിച്ചു പോകുന്ന സ്ഥലമാണ് മലപ്പുറം